മലയാളഭാഷയിൽ എന്തെങ്കിലും വ്യത്യാസം ഈ കാലയളവിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയാം വന്നിട്ടുണ്ട് എന്ന് തന്നെ പണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ താമസിച്ചവർ പതിനാല് ശൈലിയിലുള്ള സംസാരമാണ് ശീലിച്ചത് തൃശ്ശൂരിൽ താമസിക്കുന്ന ഞാൻ ചിലപ്പോൾ സംസാരിക്ക് ചിലപ്പോൾ ഒരു ശൈലിയും കോട്ടയത്ത് താമസിക്കുന്ന വേറെ ഒരു വ്യക്തി ആ ശൈലിയും തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി അവിടുത്തെ ശൈലിയും ആയിരിക്കും സ്വീകരിച്ചിരുന്നത് പക്ഷേ പിന്നെ കാലയളവ് അല്ലെങ്കിൽ കാലചക്രം മാറിയപ്പോൾ തൃശ്ശൂരുകാരൻ തിരുവനന്തപുരംകാരൻ്റെ ശൈലി കൂട്ടിക്കലർത്തിയ ഒരു ഭാഷയായിരിക്കാം സംസാരിക്കുന്നത് അതുപോലെതന്നെയാണ് കോട്ടയംകാരനും വേറെ ഏതെങ്കിലും ശൈലി കുറച്ച് അവൾ അവരുടെ ഭാഷയിൽ കൂട്ടിക്കലർത്തിയിട്ടായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെയൊരു ശൈലിയിൽ നിന്ന് വിട്ട് മാറിയിട്ടാണ് പുറം രാജ്യത്ത് നിന്നുള്ള ഒരു ഭാഷ ഇപ്പൊൾ മലയാളത്തിലേക്ക് കൂട്ടിക്കലർത്തി സംസാരിക്കുന്നത് ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ സംസാരിക്കുന്നൊരു വാക്കാണ് സീൻ ആക്കരുത് എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മലയാളത്തിൽ പറയുന്നതിനാണ് ഇപ്പോൾ സീൻ ആക്കരുത് എന്നൊക്കെ പറയുന്നത് അതുപോലെ കൊച്ചിക്കാരുടെ നുമ്മ അങ്ങനത്തെ കുറച്ച് ശൈലികൾ ഉണ്ട് അതൊക്കെ തൃശൂർ എന്നോ കോട്ടയം എന്നോ തിരുവനന്തപുരം എന്നോ കാസർഗോട് എന്നോ ഒരു വ്യത്യാസവുമില്ലാണ്ടെ ആണ് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നത്